ആ രണ്ട് ദിവസം മുന്നേ വിളിച്ചതല്ലേ ആ ഇന്ന് ഓക്കേ വീടിൻ്റെ മുകളിലാണോ ട്ടാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്

ആ സിഗ്നല് നോക്കിയിട്ട് നോക്കിയിട്ട് വീട്ടിൻ്റെ മുകളിലായിട്ട് ആക്കാം ആ ഓക്കേ അത് ചെയ്യാം ആ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് വല്ല ഫ്രീയോ അങ്ങനെ ചാ സബ്സ്ക്രിപ്ഷന് ആ അതിൻ്റെയൊക്കെയോ ആറുമാസത്തിന് ആ ഇപ്പം എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ക്യാഷ് എത്രയാവും ആ ആ ആറുമാസത്തിനും ചേർത്തെടുക്കാൻ പറ്റുമോ

ആ ഓക്കേ മ് ആ ഇപ്പം മന്ത്ലി എത്രയാണ് ചാർജ് ചെയ്യുന്നത്

അപ്പം വേറെ ചാനല് വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണോ ഓ ആ മ് ഫുള്ളായിട്ട് എടുക്കണമെന്നു പറഞ്ഞാൽ എല്ലാ ചാനലും ആണോ

ആ സർവീസ് ഓക്കേ നമുക്ക് ഗൂഗിൾപേ വഴി ചെയ്യാമല്ലോ അല്ലെ ഇത് റീചാർജ് ആ ഓക്കേ

ആ ശരി ഓക്കേ

ആ ഓക്കേ ഇപ്പം ഇൻസ്റ്റാളെയ്യാം

കസ്റ്റമർ കെയർല് അല്ലെ

ആ ഓക്കേ ഓക്കേ താങ്ക്യൂ